ഹലോ സ്വിഗ്ഗി ഡെലിവറി ഗായല്ലേ ഞാന് വിളിച്ചത് ഞാന് സ്ട്രീറ്റ് നമ്പര് ട്വല്വിലാണ് താമസിക്കുന്നത് ഇനി പ്രോപ്പറായിട്ടു തന്നിരുന്നു അപ്പോൾ അതിന് ഇതുവരെ എനിക്ക് ഫുഡ് ഡെലിവേഡായിട്ടില്ല പക്ഷെ സ്വിഗ്ഗിയിൽ നോക്കുമ്പം നമുക്ക് ഡെലിവേഡായിയെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന്റെ റീസണെന്താണെന്നറിയാന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂറായി നിങ്ങള്ക്ക് ഇത് ഞാന് ഇട്ടിട്ട് ഡെലിവർ ചെയ്യാന് വേണ്ടിയിട്ട് ഓഡര് ചെയ്തിട്ട് പക്ഷെ ഇതുവരെയും എനിക്കത് കിട്ടിയിട്ടില്ല ഡെലിവേഡായിട്ടില്ല അതെ അതെ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനോഡര് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിരുന്നു ഇപ്രാവശ്യമെന്തു കൊണ്ടാണെന്ന് അത് അറിയാന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ഓ നിങ്ങളുടെ സര്വറിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ നോ പ്രോബ്ലമാണെങ്കില് ഒന്നതൊന്ന് എന്താ എനിയ്ക്ക് കംബ്ലേയ്ൻ്റ് ചെയ്യണം മീന്സ് എയ്ക്കറിയണമല്ലോ എന്താ കാരണമെന്ന് ഏയ് പ്രശ്നമുണ്ടാക്കാന് വേണ്ടിയിട്ടല്ല ഇത് ഞാനൊരു ഡെയിലി കണ്സ്യൂമറാണ് നിങ്ങളുടെയൊരു കസ്റ്റമറാണ് അപ്പോൾ എനിക്ക് അത് കറക്റ്റ് ടൈമിൽ കിട്ടണമെന്നുണ്ടാകുമല്ലോ അതു കൊണ്ടാണ് ഇതിനൊരു പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഇതു ചെയ്തു തരാന് പറ്റുമോ ആണോ ആ ഡെലിവേഡായി ആയി എന്നു കാണിക്കണതിൻ്റെ റീസണും കൂടി എനിക്കറിയണം എന്തു കൊണ്ടാണ് അതിന്റെ കാരണമെന്നറിയണമല്ലോ അറിഞ്ഞാലല്ലേ എനിക്കതിനനുസരിച്ചെന്തെങ്കിലും ചെയ്യാന് പറ്റൂ അതല്ലേ ഫീഡ്ബാക്കിലാണ് അതിനെക്കുറിച്ച് ഞാനിടുന്നുണ്ട് എന്താ കാര്യമെന്നറിയാന് വേണ്ടിയിട്ട് അതെ അതെ ഏയ് നിങ്ങളുടെ റേറ്റിങ്ങിനൊന്നും ഞാന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരുത്തിക്കുന്നതല്ല ഓക്കെ ഏയ് നെറ്റ് വർക്ക് ഇഷ്യൂ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എയ്ക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാന് പറ്റുന്നുണ്ട് അതുകൊണ്ട് നെറ്റ് വര്ക്ക് ഇഷ്യൂ ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല അതെ അതെ ഓക്കെ പറ്റുന്ന പോലെ ഒന്ന് അതിനെന്തെങ്കിലും ചെയ്യാന് പറ്റുമെങ്കിലൊന്നു ചെയ്ത് തരൂ റിലേറ്റീവ്സിനു വേണ്ടിയിട്ടാണ് ഫുഡ് ഓഡർ ചെയ്തത് ഇത്രയും നേരമായിട്ട് ലഭിക്കാത്തതു കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഓക്കെ ശരി അതിനനുസരിച്ച് നിങ്ങള് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഞാനെന്തായാലും ഒരു കംബ്ലേയ്ന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിന്റെ കാരണമറിയണമല്ലോ നമുക്ക് ഓക്കെ